ആ അതെ അതെയല്ലോ കഴിക്കാന് അപ്പമുണ്ട് പൊറോട്ടായുണ്ട് ഇഡ്ഡലിയുണ്ട് ഇടിയപ്പമുണ്ട് അപ്പം ഇടിയപ്പം പൊറോട്ട ഇഡ്ഡലി ഇതൊക്കെയുണ്ട് ചെറു ആ ചേര്ക്കാം എന്താണ് വേണ്ടത് പൊറോട്ടായാണോ ആ മുട്ടക്കറിയുണ്ട് ബീഫുണ്ട് അതിലെന്താണ് വേണ്ടത് ആ പതിനഞ്ച് പാഴ്സല് ആ എപ്പോഴത്തേക്ക് വരും പൊറോട്ടായ്ക്ക് ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപയാണ് ആ മുട്ടക്കറി ഇരുപത് രൂപ ആ ടോട്ടല് മൊത്തം കണക്കുകൂട്ടി എത്രയെണ്ണമാണ് പതിനഞ്ച് പേർക്കാവുമ്പോള് എത്രയെണ്ണമാണ് പറഞ്ഞത് ആ ആ അമ്പത് പൊറോട്ട ആ അപ്പം പൊറോട്ട എല്ലാം കൂടെ ഒരു അയ്യായിരം രൂപ കൂട്ടിക്കോളൂ അത് ബാക്കിയുണ്ടെങ്കില് നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമെടുക്കാം ബാക്കി നമുക്ക് കണക്ക് കൂട്ടിയിട്ട് പിന്നെ തരാം കൂടുതലാണെങ്കില് ആ ആ ഇത്തിരി കുറയ്ക്കാം നമുക്ക് ആ പുറത്തൊക്കെ നല്ല അഭിപ്രായമാണ് ഇവിടെ പാഴ്സലായിട്ടൊത്തിരി പേര് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് പൊറോട്ടായും അപ്പവുമൊക്കെ ഓഡര് ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ആ എപ്പോഴത്തേക്ക് വരും എപ്പോഴത്തേക്ക് വരും വാങ്ങിക്കുവാനായിട്ട് ആ അപ്പോഴത്തേക്ക് തന്നെയെല്ലാം റെഡിയാക്കി വെച്ചേക്കാം നൂഡില്സ് ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കന് ബിരിയാണിയുണ്ട് ആ ആ അതുണ്ട് ആ അതിന് അതിന് നിങ്ങള് സാധാരണ കൊടുക്കുന്നത് എത്രയാണ് ആ ആ വില തന്നെയാണ് ഇവിടെയും

ആ ആപ്പിള് ജ്യൂസ് ഏത് വേണമെങ്കിലുമുണ്ട് നിങ്ങള്ക്കേതാണ് വേണ്ടതെന്ന് പറഞ്ഞാല് മതി ആ ഐസ്ക്രീം ഉണ്ട് അത് ഏത് ഏതിന്റെ വേണം ഇരുപത്തിയഞ്ചിന്റെയുണ്ട് എന്താണ് പത്ത് പതിനഞ്ച് പേര്ക്കൊക്കെ എടുക്കുമ്പോള് പത്ത് ഇരുപത്തിയഞ്ച് രൂപയുടെ എടുക്കാം നമുക്കൊരെണ്ണത്തിന് അതുപോരെ പതിനഞ്ച് ആ ചോക്കോബാര് ഉണ്ട് ഫുഡ് അതായത് ബിരിയാണിയൊക്കെയുണ്ട് വീട്ടില് കൊണ്ടു തരണമെങ്കില് കൊണ്ടു തരാം അതിന് വീട്ടില് കൊണ്ടു തരണമെങ്കില് വണ്ടിക്കൂലിയൊക്കെ കൊടുക്കണം അല്ലെങ്കില് നിങ്ങള് വണ്ടി വിട്ടാല് മതി അതില് ആളെ പറഞ്ഞുവിട്ടാല് മതി കൊടുത്തുവിട്ടേക്കാം പാഴ്സലാക്കി എല്ലാ സാധനവുമുണ്ട് നിങ്ങളേതാണ് വേണ്ടതെന്ന് ഒര്ഡര് പറഞ്ഞാല് മതി തരാം ആ ബിരിയാണി കൊടുത്തയക്കാം ചിക്കന് ബിരിയാണി ആ ഏഴ് പേര്ക്കോ

അല്ലാതെ വേറെ പ്രത്യേക വേറെ ഐറ്റം ഒന്നും വേണ്ടല്ലോ ആ ഹാ ആ ഉണ്ട് ചോറൊക്കെ എല്ലാം ചൂടാണ് പൊറോട്ടായെക്കെ അത് ചൂടാണ് എല്ലാം ഇന്നലെ ആ ഇവിടെ നിങ്ങള് ഇടയ്ക്കൊക്കെ ഇറങ്ങുമ്പോള് ഇതിലെയൊക്കെ ഒന്ന് വരൂ കാണാമല്ലോ നല്ല വൃത്തിയൊക്കെയുണ്ട് നല്ല എല്ലാം നല്ല ഇതായിട്ടുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ഇതാണ് ആ ആ ഓക്കെ ആ ഓക്കെ

ആ എല്ലാം കൂടെ കൊടുത്തിട്ട് ഒടുവില് കണക്കുകൂട്ടി പറയാം കേട്ടോ ആ ശരി